സാമൂഹിക മാധ്യമങ്ങളിൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കില് കൂടുതലായിട്ടും ഞാന് എൻ്റെ നല്ല നല്ല ഫോട്ടോസും നല്ല നല്ല ഓർമ്മകളും കൂട്ടുകാരുയും ഫാമിലിയുടെയും കൂടെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഷെയറെയ്യാറുള്ളൂ പങ്കുവയ്ക്കാറുള്ളൂ അതു പോലെതന്നെ സാമൂഹിക മാധ്യമം എന്താ ഇടപെടലുകളുണ്ടാക്കാൻ സഹായമായിട്ടുണ്ടോ എന്നു ചോദിച്ചാല് ഉണ്ട് കാരണം ഇപ്പോള് ദൂരെയായിട്ടുള്ള എൻ്റെ ചേച്ചിയാണേ പോലും പിന്നെ കുറേ ഫ്രണ്ട്സ് പുറത്തുപോയിട്ടുണ്ട് ദൂരെയുണ്ട് അവരുമായിട്ടു സംസാരിക്കുക അവരെ കാണുകയും എല്ലാം ഇതുവഴി പറ്റുന്നുണ്ട് പിന്നെ എന്താ കുറേക്കുറേ നല്ല സൗഹൃദങ്ങള് നമുക്കിതു വഴി എനിക്കു കിട്ടിയിട്ടുണ്ട് പേഴ്സണലി പറയാണെങ്കില് എനിക്കു നല്ല പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്വകാര്യതയെ കുറിച്ച് നിങ്ങള്ക്ക് പേടി തോന്നിയിട്ടുണ്ടോ എന്നു ചോദിച്ചാല് ഇല്ല ഇതുവരെ തോന്നിയിട്ടില്ല ഇതുവരെ എനിക്കങ്ങനത്തെയൊരു സിറ്റുവേഷനുണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ ഇതുവരെ പേടിയുടെ ആവശ്യം എനിക്കു വന്നിട്ടില്ല